സർക്കാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ഫണ്ടാണ് എന്താണ് പറയുക വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഫണ്ട് കാരണം ഞങ്ങൾക്ക് പ്രളയം വന്ന സമയത്ത് അതിൽ ഞങ്ങളെ വീടൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എന്താണ് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സർക്കാറിനോട് ഒരു ഫണ്ട് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് അത് ലഭ്യമാക്കി തന്നത് സർക്കാർ തന്നെയാണ് അപ്പോൾ ഈ ഫണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫണ്ട് ചോദിച്ചപ്പോൾ വേഗം തന്നെ അത് ലഭ്യമാക്കി തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇനി ഒരു റോഡ് ശരിയാക്കാൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് സർക്കാറിനോട് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ സർക്കാർ അനുവദിച്ച് തരുകയാണെങ്കിൽ ഈ ഫണ്ട് അനുവദിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ റോഡും കൂടെ മര്യാദയ്ക്ക് ഒന്ന് ശരിയാക്കാമായിരുന്നു കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഈ ഞങ്ങൾ ഈ താമസിക്കുന്ന കോളനിയിൽ തന്നെ പത്തിൽ അധികം പേർ രോഗികളാണ് അപ്പം അവർ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടു പോവാനോ ഒന്നിനും ഞങ്ങൾക്ക് ഗതാഗത സൗകര്യം ഞങ്ങൾക്ക് ഇല്ല അപ്പോൾ എന്താനണ് ഞങ്ങൾക്ക് ഈ ഈ ഫണ്ടും കൂടെ സർക്കാർ ഒന്ന് അനുവദിച്ച് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ റോഡ് ഗതാഗതം കൂടെ ഒന്ന് ഞങ്ങൾക്ക് ശരിയാക്കാമായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ആരോഗ്യപരമായ സംരക്ഷണം അത് ഇവിടെ ഞങ്ങൾക്ക് അടുത്ത് ഒരു ഹോസ്പിറ്റല് പോലും ഇല്ല അപ്പം ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലുണ്ടാക്കി തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായിരുന്നു പിന്നെ ഈ ഞങ്ങൾ ചോദിച്ച ഫണ്ടുകളെല്ലാം സർക്കാറിൽ നിന്ന് ലഭ്യമാക്കി തന്നിട്ടുണ്ട് പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾക്ക് അടുത്ത് തന്നെ സർക്കാർ ഫണ്ട് വന്നിട്ട് ഞങ്ങളെ അടുത്ത് ഒരു വിദ്യാലയം ഞങ്ങൾ സ്ഥാപിച്ചു ഇപ്പോൾ അതിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്